പതിന്നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒൻപത് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത്